ഞാൻ സ്കൂൾ കോളേജിൽ നിന്ന് ചിത്രരചനയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ഇപ്പോള് എന്താണ് എന്റെ ചേട്ടൻ ഒരു ആർട്ടിസ്റ്റാണ് പടം വരയ്ക്കുന്നൊരാളാണ് ചേട്ടൻ വരയ്ക്കുന്നതു കണ്ടുകൊണ്ട് ഞാനും ചെറിയ രീതിയിൽ വരയ്ക്കുന്നു അത്രയൊക്കെയേ ഉള്ളൂ പിന്നെ ഞാൻ അങ്ങനെ അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എന്തേലും ഏക്സിബിഷനോ കാര്യങ്ങളോ കോളേജിന്റേതായിട്ടുള്ള വര്ക്കുകളൊക്കെ വരുമ്പോള് ഞാന് വരയ്ക്കാറുണ്ടായിരുന്നു അവിടുന്ന് പഠിക്കേണ്ടി ഒന്നും പഠിച്ചിട്ടില്ലങ്ങനെ പിന്നെ കലാകാരന്മാർക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും നല്ല കോളേജെന്നു വെച്ചാല് ഇപ്പോള് മാവേലിക്കരയില് രാജാരവിവർമ്മ ഫൈന് ആര്ട്ട്സ് കോളേജുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് ഫൈന് ആര്ട്ട്സ് കോളേജുണ്ട് തൃശൂര് ഒരു ഫൈന് ആര്ട്ട്സ് കോളേജുണ്ട് ഇതൊക്കെ കലാകാരന്മാർക്ക് നല്ല രീതിയില് ഉപയോഗപ്പെടുത്താം അവിടെ ബി എഫ് എ എം എഫ് എ മാസ്റ്റര് ഓഫ് ഫൈന് ആര്ട്ട്സ് പിന്നെ ബാച്ചിലര് ഓഫ് ഫൈന് ആര്ട്ട്സ് അങ്ങനെയുള്ള ഒരുപാട് ശൃംഖലയുണ്ട് അവിടെ സ്കള്പ്ച്ചര് ഉണ്ട് പെയിന്റിങ്ങുണ്ട് അല്ലാതെയുള്ള കലയിലുള്ള നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള മേഖലകളൊക്കെ ഉണ്ട് പിന്നെ എന്റെ കലാ ജീവിതത്തില് നേടിയെടുക്കാന് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെന്നു പറയുമ്പോള് എനിക്കിപ്പോള് ഏതൊരു കലാകാരനെ പോലെയും എന്നെങ്കിലുമൊക്കെ നാലു പേരറിയുന്ന നല്ലൊരു കലാകാരനാകണം സോറി കലാകാരിയാകണം എന്ന നല്ല രീതിയിലുള്ള ഒരാഗ്രഹമുണ്ട് അത് നേടിയെടുക്കാനായിട്ട് ഞാന് എപ്പോഴും എന്താ എന്താ പ്രാക്ടീസ്യ്യുന്നുണ്ട് നല്ല രീതിയില് വരച്ചു വരച്ചു വരച്ചു വരച്ച് അത് എന്റെ ഒന്നും കൂടതിനെ എന്താണ് നല്ലതാക്കി കൊണ്ടു വരാന് എപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോള് എന്നെങ്കിലും ഞാന് നാലു പേരറിയുന്ന കലാകാരിയാകുമെന്ന് വിശ്വസിക്കുന്നു